ഡിജിറ്റൽ ആർട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ആർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ നമ്മുടെ കഴിവാണെന്നൊന്നും നമുക്ക് പറയാനൊന്നും നമുക്ക് പറ്റില്ല കഴിവാന്നും വേണെങ്കിൽ പറയാം അത് ഒരു അൻപത് ശതമാനം നമുക്ക് പറയാൻ പറ്റുവൊള്ളൂ കാരണമെന്നുവെച്ചാൽ ബാക്കി ഫുൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണല്ലോ അപ്പോന്ന് വെച്ചിട്ടുണ്ടേൽ നമുക്ക് ഒരിക്കലും അതും പിന്നെ മനുഷ്യനിർമിത നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല നമ്മള് ചെയ്യുന്ന കലകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്ന കലകൾ കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ സ്വന്തം ഹാർഡ്വർക്ക് അതായത് നമ്മുടെ ഹാർഡ്വർക്ക് നമ്മുടെ കഴിവ് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ അതായത് ഇതൊക്കെ കൊണ്ടാണ് നമ്മള് അത്രയും കഷ്ട്ടപെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അടുത്ത ഡിജിറ്റലെന്ന് പറയുമ്പോൾ നമ്മള് ഒരാള് ഒരു മനുഷ്യനവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിലെന്തെക്കയോ കളിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ കളിച്ചുവെന്ന് പറയാൻ പറ്റില്ല കമ്പ്യൂട്ടറിൽ ഓരോന്ന് ചെയ്ത് റെഡിയാക്കുന്നത് വേറെ അത് ഡിജിറ്റൽ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുണ്ടാവുന്ന എന്ത്കൊണ്ടാണെങ്കിലും നമുക്ക് മനുഷ്യനിർമിത കലയോളം ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ ആർട്ടിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല